ഇപ്പോൾ നീന്താൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് റിലാക്സൊക്കെ ആയിട്ടാണ് പോകാറ് നീന്താൻ പോകുമ്പോൾ നമ്മൾ അതിന് വേണ്ട പ്രിപ്രറേഷൻസൊക്കെ എടുക്കും അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ച് ഫുഡ് കഴിക്കും ലൈറ്റായിട്ട് മിക്സ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ അതേപോലെ വയറ് നിറയെ ഒന്നും നമ്മളിപ്പോൾ ചോറോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഇതൊന്നും നമ്മൾ കഴിക്കാറില്ല ലൈറ്റായിട്ട് എന്തെങ്കിലും നമുക്കീ സ്റ്റാമിനയും എനർജിയൊക്കെ കിട്ടണ പോലെ ലൈറ്റായിട്ടള്ള ഫുഡ് ഐറ്റംസാണ് കഴിക്കാറുള്ളത് ദഹിക്കാൻ പറ്റുന്ന നമുക്ക് നീന്തുമ്പോൾ ദഹിക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസാണ് നമ്മൾ കഴിക്കാറുള്ളത് അതിപ്പോൾ സ്റ്റാമിന കിട്ടാൻ വേണ്ടി വിറ്റാമിനുള്ള എനർജി ബൂസ്റ്റ് ഡ്രിങ്ക്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട് അത് കഴിച്ച് നമ്മൾ നല്ല ദീർഘശ്വാസം ഒക്കെ എടുത്തിട്ടാണ് നീന്താറുള്ളത് അപ്പോൾ നമുക്ക് എക്സ്ട്രാ സ്റ്റാമിന കിട്ടും പിന്നെ ഒക്കെ മനസ്സിൻ്റെ ഒരിതാണ് മനസ്സിന് നമുക്ക് പേടിയില്ലാണ്ട് നീന്തുകയെന്നുള്ളതാണ് പിന്നെയെന്നുള്ളത് ധൈര്യമായിട്ട് നീന്തിവന്നാൽ നമുക്ക് സുഖം സുഖമായിട്ട് നമുക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്താൻ പറ്റും അപ്പോൾ വെള്ളം ഇതായി വെള്ളം ജലാംശവും കൂടെ ശരീരത്തിലുണ്ടെങ്കിൽ നമുക്ക് പോഷകാഹാരമൊക്കെയുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്റ്റാമിന ഉണ്ടാകും സ്റ്റാമിന ഉണ്ടെങ്കിൽ നമുക്ക് നീന്തി സുഖമായിട്ട് പോകാവുന്നതാണ്